ഇത് ആറ്റണി മേസരി അല്ലേ ആ ഇത് എൻ്റെ പര് സന്തോഷ്ന്നാണ് അപ്പ ഞാനേ ഇല്ല ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞാൻ ഇയാൾട നമ്പർ കിട്ടുന്നത് പിന്നെ എൻ്റെ ഞാൻ വീടൊന്ന് കൊറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആലോയിക്കയാണ് കൊറച്ച് പുതുക്കിപ്പണിയാനായിട്ടെ അപ്പ എനിക്കതിനെക്കുറിച്ചൊന്ന് അറിയണമായിരുന്നു എങ്ങനെയൊക്കെയാ അയ്ൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പിന്നെ എത്രയാ ഈ സാധനങ്ങളുടെൊക്കെ കണക്കും കാര്യങ്ങളൊക്ക ഒന്നറിയണമായിരുന്നു എനിക്ക് അങ്ങനാണ ഓക്കേ ഇപ്പോ ഞാനിപ്പോ ആലോചിക്കുന്നന്ന് വെച്ചാൽ എൻ്റെ വീടിന കാരണം ഇപ്പ എന്തന്ന് വെച്ചാല് ഒരു ഒരു നെല വീടാണ് അപ്പോൊ എനിക്കിതിൻ്റെ മേളിലോട്ട് വീണ്ടു ഒരു ഫ്ലോർ എടുക്കണം ഞാൻ അതിനാ ആലോചിക്കുന്ന ഇപ്പോ ഇവിടെ ഞങ്ങിവിടെന്ന് വെച്ചാല് സാഴത്ത ഫ്ലോർന്ന് വെച്ചാൽ മൊത്തത്തിലൊര് ഒരു തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അപ്പ മേളില് ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഒരു രണ്ട് റൂമെടുക്കണം മൊത്തത്തിലല്ല രെണ്ട് റൂമെടുക്ക രെണ്ട് റൂമും ഒരു സിറ്റ്ഔട്ട് എടുക്കുക പിന്നെ ബാക്കി വന്ന് പ്രെസടിക്കുക അങ്ങനെ ഞാൻ ആലോചിക്കുന്നത്

ആ അല്ല ഹോളല്ല ഞാൻ ഞാൻ ആലോിക്ക ചെ ഹളി് പോർഷന് അതും കൂടെ ചേർത്ത് നക്ക തന്നെ റൂംമാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് ഹോളിൻ്റെ പകുതി വെച്ച് റൂംമാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെൊരു കാര്യം താഴേന്ന് വെച്ചാ താഴത്തെ ഹോളില് നമ്മളവിടെ ബീമന്നും അടിച്ചിട്ടില്ല അപ്പൊ മേളത്തെ എങ്ങനെയാണ് ബല പോവും നമ്മള് ഇതിലും ബലം എങ്ങനെയാണോ കണ്ട്രിക്കൂടെ നമ്മള് ചോുവരടിക്കുമ്പഴേ അടീല് പ പിള്ളറോ സ്ട്രോങ്ങാവല്ലേ ഓക്കെ ക്കെ അോടെേർത്ത് തെ ബീടിക്കന്നില്ല ആ പിള്ളറോട അങ്ങന ചേർത്ത് ഓക്കെ ഓക്കെ ഓക്കെ അപ്പ കൊഴപ്പല്ല എങ്കില് ചെയ്യ എന്നാ ഇപ്പ അപ്പ എനിക്കന്ന് വെച്ചാ ഇപ്പോ ഞാനിപ്പോ ലീവിലാണ് വന്നേക്കുന്നത് എനിക്കിപ്പോ രണ്ട് മാസം ലീവുണ്ട് അപ്പ രണ്ട് മാസനുള്ളില് കഴിയുവല്ലോ ോ പറ്റോളല്ലേ ഓക്കെ ഓക്ക കാരണം വന്ന അല്ല കാരണം ഞാൻനിക്കിപ്പപ്പോ രണ്ട് മാസം കഴിഞ്ഞാ ഇവിടുന്ന് പോണംാം ഞാൻ ഈ ഒരു വീട് മണിക്ക് വേണ്ടിയാണ് ഇപ്പപ്പോ ലീവ എടുത്ത് വന്നിേക്കുന്നത് അതുകൊണ്ട് അന്ന് പെക്ഷണൊന്ന് സ്പീഡപ്പ ആാക്കിയാ കൊള്ളായിരുന്നു ആ മെറ്റീരിയൽസ്ന്തെങ്കി ആദ്യം എന്തൊക്കെയാണ് ഇറക്കേണ്ടതന്ന് പറയാവോ എത്ര എറക്കണം അല്ലക്ക് ഈ നമ്മുടെ മെറ്റലായിക്കോട്ടെ ഇനി മണലായിക്കോട്ടെ അല്ലെങ്കി സിമെൻറ്റ് എത്ര പാക്കറ്റ് അതന്ന് പറയാവോ ഇനി കമ്പനിി എത്രയാണ് ഞാൻ ഹോളോബെറ്റ്സ് ആ അത് മതിയാവും അഞ്ഞൂറ് നാന്നൂറ അല്ലേ ആ ഓക്കെ പാർപ്പടുന്നാശം ഇപ്പ ആദ്യം ഒരു ഇ ഇരുന്നൂറ്ു പേർക്ക് എറൊക്കാ അതെയോ മതിയാവല്ലേ അപ്പ സിമ സിമെൻറ് ഒരു പത്ത് പാക്കറ്റണ്ട് ഇപ്പോ ആദ്യം ഓക്കെ ഓക്കെ ഈ കമ്പീുടെ കാര്യം എങ്ങനെ നമുക്ക് ആ ഷെയ്ഡിൻ്റെയും തട്ടിൻ്റെ ആ സമയം നോക്കിയാതെയ അതോ ഇപ്പഴേ വേണോ ആയിക്കട്ടെ ആയിക്കോട്ടെ എങ്കില് ഞാന ഇതൊന്ന് നക്കട്ട് ഞാ എന്തായാലുംാറിൊന്ന് ഇയാാൊന്ന് കോൺടാക് ചെയ്യാം ഓക്ക എന്നാളെ